നമു നമുക്ക് നേരിട്ട അനുഭവം നിറ ചില വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ നമ്മൾ പിൻ പരിപാടി അവതരിപ്പിക്കാൻ ഡാൻസ് അവതരിപ്പിക്കാൻ പോയ സ്ഥലത്ത് നമുക്ക് സമയത്ത് എത്താൻ കഴിയാത്തതിനാൽ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മളുടെ സമയം കഴിഞ്ഞുപോയി നമ്മളവിടെ എല്ലാവരെയും സംഘടിപ്പിച്ച് എത്തിപ്പെടുമ്പഴത്തേനും നമ്മുടെ സമയം കഴിഞ്ഞു എന്നാ അവിടെ ഉള്ള ആൾക്കാര് പറയുമ്പം നമുക്ക് അതൊരു വലിയ ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് തോന്നിയത് നമ്മളുടെ പരിപാടി അന്ന് അവതരിപ്പിക്കാൻ കഴിയില്ല കഴിയാത്തതുകൊണ്ട് നമുക്ക് അതിന് നമുക്ക് വല്ലാത്തൊരു അനുഭവം അതാണ് ഞ എൻ്റെ അനുഭവത്തില് കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരനുഭവം